എനിക്ക് വായിക്കുന്നതിലേറ്റവും കൂടുതലിഷ്ടം ഉള്ളത് നോവലുകളാണ് നോവലുകളുടെ ഇനി ഇപ്പം അധികം കളക്ഷ കുറേ കളക്ഷന്സുണ്ട് അപ്പോൾ ചെറുപ്പ കാലം തൊട്ടേ ഞാൻ ലൈബ്രറിയില് പോകുന്നൊരാളാണ് അപ്പം അവിടെ നിന്ന് പലപല നോവലിന്റെ സെലഷ കളക്ഷന്സെടുക്കാറുണ്ട് അപ്പം ഒരു പല പലരുടെ പല നോവലിസ്റ്റിൻ്റെയും ഇതും കളക്ഷന്സെനിക്കുണ്ട് അപ്പം അത് അനുസരിച്ചു വായിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം പിന്നെ അതു കൂടാതെ എനിക്ക് ദിവസം പത്രം പത്രം വായന ഞാനൊരിക്കലും മുടങ്ങാറില്ല അതിൽ സമയമെടുത്തു നന്നായിട്ട് ഓരു ഒരു കോണിൽ നിന്നങ്ങയറ്റം വരെയും നന്നായിട്ടു വ്യക്തമായിട്ടും രീതിയിലും വായിക്കാറുണ്ട് എനിക്കതു കൊണ്ട് പത്രം വായനയോടും ന്നേ നോവൽ നോവലുകൾ നോവലേസ് നല്ലതായിട്ട് ഉള്ള രീതികൾ ഞാനെടുക്കാറുണ്ട് അതും വായിക്ക്ന്നദിനിക്കിഷ്ടമാണ് പിന്നെ ഇതിനേക്കുറിച്ച് പറയുവാണെങ്കില് നേ കൊറച്ച് കൊറച്ച് കാര്യങ്ങള് നമക്കാധികാരികമായി ചിന്തിക്ക്ന്നേനും പ്രവര്ത്തിക്കുന്നേനൊക്കെ ഈ നോവല്കളും നമക്ക് സ്കൂൾളെ കുട്ടികള്ക്ക് കഥകൾ പറഞ്ഞ് കൊടുക്കുന്നേനും കൊറച്ച് ഭാഷാപരമായി നമുക്കൊരിമ്പ്രൂമെൻ്റുണ്ടാകുന്നതിനൊക്കെ ഈ നോവലുകളുടെ നോവലുകൾ സഹായിക്കാറുണ്ട് ഒത്തിരിയേറെ ഭാഷകൾ നമുക്ക് അതു പോലെ തന്നെ വാക്കുകളും പ്രൊനൗണ്സ് ചെയ്ത രീതികളുമൊക്കെ നമുക്ക് ഈ നോവൽ വായിക്കുന്നതോടു കൂടി നമ്മുടെ സംസാരിക്കാനുള്ള രീതി ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് അതു കൊണ്ട് നോവൽ വായിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതലിഷ്ടം പിന്നെ അതുപോലെതന്നെ ഞാൻ പറഞ്ഞല്ലോ പത്രം വായിക്കുന്നതും പത്രം വായിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ നേ ദീപിക പത്രം വരുത്താറുണ്ട് മനോരമ പത്രം വരുത്താറുണ്ട് ഈ രണ്ട് പത്രവും ദിവസവും ഒരു ഒരു വരി പോലും വിടാതെ വായിക്കാനിഷ്ടമുള്ള ഒരാളാണ് കാരണം ന്യൂസ്സുകൾ എന്നേ ബാക്കി സോഷ്യല് മീഡിയയിൽ വരുന്ന പകുതി ന്യൂസ്സുകളും കൃത്യമാകണമെന്നില്ല അതിനകത്ത് ചില കുറവുകളൊക്കെ വരാറുണ്ട് അതിനകത്ത് ചിലപ്പം സത്യസന്ധമായ ചില കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണമെന്നില്ല പക്ഷേ അതിനാലും കാലങ്ങളോളം പഴക്കമുള്ള ഈ പത്ര വാര്ത്ത തന്നെയാണ് ഏറ്റവും കൂടുതൽ നെ ഇതായിട്ടുള്ളത് അത് കാരണം എനിക്ക് പത്രം വായിക്കുന്നതാണ് ഏറ്റവും കൂടുതലിഷ്ടം പിന്നേ വേറെ എന്താ പറയുക എന്നു വെച്ചാൽ എനേ ചിലപ്പം കുഞ്ഞുക കുട്ടികളായിരിക്കുമ്പം കുഞ്ഞായിരിക്കുമ്പം നെ കഥാ പുസ്തകങ്ങള് കഥാ പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു അതിന്റെ ഒരു ശേഖരണം തന്നെയുണ്ട് അതും കുറേ ഉണ്ട് ഇടയ്ക്ക് പിന്നേ മാഗസിന്സ് മാഗസിന്സൊക്കെയുണ്ട് അതിന്റെ കളക്ഷന്സുണ്ട് അങ്ങനെ ഒത്തിരിയേറെ പുസ്തകങ്ങള് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ് ഇഷ്ട അതിനകത്ത് പ്രത്യേകിച്ച് എന്ന വനിതാ അങ്ങനെയുള്ള പരിപാ അങ്ങനെയുള്ള മാസികകൾ ഇതെല്ലാം ഞാന് വായിയ്ക്കാറുണ്ട് അതെല്ലാമെനിക്കിഷ്ടമാണ് താനും പിന്നെ എന്താ വായിക്കുന്നതിലൂടെ നമ്മൾ വായിച്ചു വളരണം എന്നല്ലേ പറയാറുള്ളത് വായിക്കുന്നതിലൂടെ നമുക്കൊത്തിരി അറിവുകള് കിട്ടാറുണ്ട് പിന്നേ പാചകത്തിൻ്റെയും പാചക പിന്നേ എന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങള് അങ്ങനെ ഒത്തിരിയൊത്തിരി കാര്യങ്ങള് നമുക്ക് വായിക്കുന്നതിലൂടെ നമുക്ക് അറിവ് ലഭിക്കാറുണ്ട് അതു കൊണ്ട് അത് ഇങ്ങനെ പോകുന്നതാണ് നേ വായിക്കുന്നത് വായിക്കുന്നതിലൂടെ ഒരിക്കലുമവര്ക്ക് അവർ കുറ്റ ബോധമോ ഒരു നഷ്ട ബോധമോ ഉണ്ടാകാറില്ല എല്ലാവര്ക്കും നല്ലത് നല്ല രീതിയിൽ പോകണമെങ്കിൽ നല്ല അറിവും വിവരവും ബോധവും ഒക്കെ ഈ വായനയിലൂടെ നമുക്ക് ലഭിക്കും